കണ്ണൂർ ജില്ലയിലെ ജനപ്രിയമായ പ്രാദേശിക വിനോദങ്ങൾന്ന് പറയുന്നത് ക്രിക്കറ്റ് ഫുട് ബോള് വോളി ബോള് അതൊക്കെയാണ് ഫുട്ബോളിനൊക്കെ ഓരോ ടീമൊക്കെ ആയിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ കളിക്കാനൊക്കെ പോകാറുണ്ട് പിന്നെ ഗ്രൗണ്ടുകളിൽ പരിപാടിയൊക്കെ വരുമ്പോൾ അവിടൊയെക്കെ കളിക്കാറുണ്ട് പിന്നെ നമ്മുടെ പ്രദേശത്തിപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ സുഖമില്ലാണ്ടൊക്കെ ആകുന്ന ടൈമിൽ ഈ തൊട്ടടുത്തുള്ള എല്ലാ പ്രദേശക്കാരൊക്കെ കൂടെ ചേർന്നിട്ട് ഇവരിങ്ങനെ മേച്ചൊക്കെ സംഘടിപ്പിച്ച് അതിൽ ഇങ്ങനെ മേ മേച്ചൊക്കെ സംഘടിപ്പിച്ചിട്ട് അതിലു കിട്ടുന്ന പൈസയെ കൊണ്ട് അതിൽ കളിച്ചവർക്കും പൈ പൈസ കൊടുത്ത് പിന്നെ നമ്മളെന്ത് ലക്ഷ്യത്തിനാണോ നമ്മൾ ഈ മേച്ച് സംഘടിപ്പിച്ചത് അതിന് വേണ്ടീട്ടും ബാക്കി പൈസ ചെലവാക്കുവൊക്കെ ചെയ്യും ഇങ്ങനെ ഓരോരു സ്മാരക വായനശാലകളക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതിൻ്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെയുള്ള മേച്ചുകളും ഇങ്ങനെയുള്ള ആ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുന്നതൊക്കെ ഇങ്ങനെയുള്ള വായനശാലകളുടെയൊക്കെ നേതൃത്വത്തിലാണ് പിന്നെ എല്ലാ കൊല്ലവും തുടർച്ചയായി വരുന്ന ഫെസ്റ്റിവൽസ് സർക്കസ്സ് അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ വരുമ്പോൾ ജനങ്ങളെല്ലാവരും ആ അവർ ഫെസ്റ്റിവൽസൊക്കെ നടത്തുന്ന ആൾക്കാർ തീരുമാനിച്ച സമയത്ത് കൃത്യമായി ഇപ്പം ഫ്രണ്ട്സിന് ഒപ്പമൊരു റിലേറ്റീവ്സിൻ്റെ ഒപ്പമൊരു ഒക്കെ നമ്മളൊന്നിച്ച് അത് അവിടെ ചെല്ലുകയും പിന്നെ അതൊക്കെ കണ്ട് ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ സമൂഹ ബോധത്തിനെന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുമിച്ചൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് നല്ല സന്തോഷവും തൃപ്തിയുമൊക്കെ നമുക്കതിനെ അതിൽ നിന്ന് നമുക്ക് ലഭിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്